ഞങ്ങളുടെ തൊട്ട് അടുത്ത ഹോസ്പിറ്റലെന്നു പറയുമ്പോൾ മാനന്തവാടി ഹോസ്പിറ്റലാണ് അത് മെഡിക്കൽ കോളേജെന്നു പേര് മാത്രമേ ഉള്ളൂ എക്സറെയോ സി ടി സ്കാനോ എം ആർ ഐയോ എന്നിവ എന്ത് എടുക്കണമെങ്കിലും ഞങ്ങൾ പുറമെ പോയിട്ടാണ് എടുക്കുക അവിടെ ചെന്നാൽ ഒരു കാര്യങ്ങളും ഇല്ല ഒരു ഒര് ഇതും അവിടെയില്ല ഒരു മെഷീനുകളും അവിടെയില്ല എല്ലാത്തിനും പുറമേ പോകണം പിന്നെ രക്തം പരിശോധിക്കുന്നതാണോ മൂത്രം പരിശോധിക്കുന്നതോ എല്ലാം എല്ലാത്തിനും ഞങ്ങൾ പുറമേ ആണ് പോവുക ഞങ്ങൾ മാനന്തവാടി ഹോസ്പിറ്റലിൽ പോക്ക് വളരെ കുറവാണ് അവിടെ ഡോക്ടർമാരൊന്നും പരിശോധനയ്ക്ക് തീരെയില്ല ആൾക്കാർ ഉണ്ട് കുറേ ആരും നോക്കാനും നേരമില്ല ഒന്നിനും നേരമില്ല ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും അസുഖം വന്ന് രാത്രി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ നിന്ന് വാങ്ങുന്ന മരുന്നൊക്കെ നമുക്ക് എല്ലാം പുറത്തേക്കാണ് പുറത്താണ് ഉണ്ടാവുക അവിടെ അവിടെ മരുന്നൊന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ എല്ലാ മരുന്നും ഉണ്ട് പക്ഷേ ഒരു ഗ്യാസിന്റെ മരുന്ന് പോലും അവിടെ കിട്ടാനില്ല പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കാര്യമില്ല ഞങ്ങൾ മറ്റുള്ള ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും എല്ലാം പോയി കാണിക്കുകയാണ് ചെയ്യുന്നത് ആശുപത്രിയിലോ ചെറിയ ഹോസ്പിറ്റല് വേറെ എവിടെയെങ്കിലും പോയി അങ്ങനെ പോയി കാണിക്കുന്നയാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കാര്യവുമില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഭയങ്കര മെഡിക്കൽ കോളേജ് എന്നു പേരും ഉണ്ട് ഇപ്പോൾ ഒന്നും അവിടെ ഒരു സൗകര്യവുമില്ല പണ്ടത്തെ ഹോസ്പിറ്റലേയല്ല മാനന്തവാടി ഹോസ്പിറ്റല്